ആ അതെ എത്ര വർഷത്തേക്കുള്ളതാണ് ഓ അങ്ങനെ ടോട്ടൽ ആയിട്ടുള്ള എമ അല്ലാണ്ട് വർഷം അല്ലല്ലേ ഇല്ല ലൈഫ് ഇൻഷുറൻസ് മതിയാകും പിന്നെ ഈ ആക്സിഡൻറ്റ് ഒക്കെ സംഭവിച്ച് കഴിഞ്ഞാൽ ഈ ക്ലെയിം എന്ത് ചെയ്യും അപ്പോൾ അറുപത് വയസ്സിനുള്ളിൽ

ആറ് മാസത്തിലാണ് അപ്പോൾ മന്ത്ലി അടക്കണ്ടല്ലെ

അപ്പോൾ അറുപതാമത്തെ വയസില് നമുക്ക് എടുക്കാൻ പറ്റുവൊള്ളൂ ഓ അപ്പോൾ നമുക്ക് ഇതില് ഇടയിലൊന്നും എടുക്കാനോ യൂസ് ചെയ്യാനോ പറ്റില്ല അതിൻ്റെ എമൗണ്ട് സ്റ്റാർട്ടിങ് തന്നെ ആയിരം രൂപയിലാ എമൗണ്ട് ക്ലെയിം സ്റ്റാൻഡ് ആവും

ബാക്കി ബാക്കി എല്ലാത്തിനും അപ്പോൾ ലാസ്റ്റ് എമൗണ്ട് ആകുമ്പോൾ എത്ര വരും നമുക്ക് എടുക്കാൻ പറ്റും ലാസ്റ്റ് അറുപത് വയസു കഴിഞ്ഞാൽ പെൻഷൻ ആയിട്ട് തന്നെ വരും കുറച്ച് കുറച്ച് എമൌണ്ട് ആയിട്ട് വരുന്നാ അല്ലേൽ ടോട്ടൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുവോ ആ കേൾക്കുന്നുണ്ട് ആ അപ്പോൾ അത് നോമിനീക്ക് കിട്ടും അപ്പോൾ പെൻഷന് എത്ര എമൗണ്ട് വെച്ച് തരും ആ അപ്പോൾ ആ എമൗണ്ട്ന് അനുസരിച്ചിട്ടുള്ളത് ഓക്കേ ഓക്കേ ക്ലിയർ ആയി അപ്പോൾ അല്ല ഡോക്യൂമെൻറ്റ്സ് എങ്ങനെ ഞാൻ എത്തിക്കണോ അല്ല വരുവോ അത് ചോദിക്കാൻ വന്നതാ ഫോട്ടോ വല്ലതും ആവശ്യമുണ്ടോ

അപ്പോൾ ഞാൻ താങ്ക്യു